വ്യവസായങ്ങളിൽ ഒരുപാട് ചെറിയ സംരംഭങ്ങൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട് സമൂഹത്തിന് അതിൽ ചെറിയ സംരംഭങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു മെഴുകുതിരി ഉണ്ടാക്കുന്നത് കുടിൽ വ്യവസായം അതായത് മുറുക്ക് ഉണ്ടാക്കുന്ന സംരംഭം അതുപോലെ തന്നെ ഉണ്ടയുണ്ടാക്കുന്ന സംരംഭം അതുപോലെ തന്നെ ഈ വിളക്കുതിരി ഇണ്ടാക്കുന്ന സംരംഭങ്ങൾ മോപ്പുകളുണ്ടാക്കുന്ന സംരംഭങ്ങൾ അങ്ങനെ ഒരുപാട് സംരംഭങ്ങൾ ചെറിയ ചെറിയ സംരംഭങ്ങൾ ഇവിടെ ഉണ്ടാവുന്നുണ്ട് അതെന്ന് വെച്ചു കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് നിത്യോപകരണമാണ് നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ചെറുകിട സംരംഭങ്ങളിൽ ഉണ്ടാക്കുന്നത് ഒരു പ്രത്യേക സംരംഭത്തിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതെന്നു വെച്ച് കഴിഞ്ഞാൽ മെഴുകുതിരി ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വിളക്ക് തിരി വിളക്ക് തിരി നമുക്ക് ജീവിതത്തിൽ പൂജാ കർമ്മങ്ങൾ അതുപോലെ തന്നെ വീട്ടിൽ വിളക്ക് കത്തിക്കുമ്പോളും എന്തായാലും ഡെയിലി ദിവസം നമ്മൾ യൂസ് ചെയ്യുന്ന ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അതുകൊണ്ടു തന്നെ ആ സാധനത്തിന് എന്തായാലും ആൾക്കാർ ഉണ്ടാവും അപ്പോൾ അതിനാണ് ചെറുകിട സംരംഭങ്ങൾ അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഉള്ളതും ഈ വിളക്ക് തിരി ഉണ്ടാക്കുക എന്നതാണ് അത് എന്തായാലും ഒരിക്കലും അത് നശിച്ചു പോവാത്തൊരു സംരംഭമാണ്